പ്രാദേശിക സ്കൂളുകളിൽ പ്രവേശനത്തിനുള്ള നടപരിക്രമമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നാം നമ്മുടെ മക്കളെ ആദ്യം ഒന്നാം ക്ലാസ് ഇല്ലെങ്കിൽ എൽ കെ ജി വളരെ നല്ല ഒരു സ്കൂൾ നോക്കിയിട്ടാണ് നാം ചേർക്കുന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള സാമ്പത്തികമായി പിന്നോക്കമുള്ള ആളുകൾ നല്ലവരുമായിക്കോട്ടെ സാമ്പത്തികം ഇല്ലാത്തവരും സാമ്പത്തികം അധികമായി ഉള്ളവരുമായിക്കോട്ടെ ഗവൺണ്മെൻ്റ് സ്ഥാപനങ്ങളിൽ ചേർക്കുന്നുണ്ട് അത് അല്ലാത്ത പക്ഷം ഫീസ് അടയ്ക്കുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ചേർക്കുന്നുണ്ട് നാം നമ്മുടെ മക്കളെ ആദ്യമായി ഒരു സ്ഥാപനത്തിൽ ചേർക്കുമ്പോൾ നാം പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യമായി വളരെ നല്ലൊരു സ്ഥാപനമാണോ നമ്മുടെ മക്കൾക്ക് അത്യാവശ്യമായ എല്ലാ സൗജന്യങ്ങളും എല്ലാ പഠനവും പഠിപ്പിക്കുന്ന മികച്ച അദ്ധ്യാപകരുണ്ടോ എന്നെല്ലാം നാം മനസ്സിലാക്കിയതിന് ശേഷമാണ് നാം നമ്മുടെ മക്കളെ അവിടെ അയക്കുന്നത് അപ്പോൾ നമ്മൾ അവർക്ക് നൽകേണ്ട രേഖകൾ നമ്മുടെ മകളുടെ പേര് അവളുടെ ജനന സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ആധാർ കാർഡ് റേഷൻ കാർഡ് അങ്ങനെ പല പല രേഖകളും നാം നൽകേണ്ടതുണ്ട് അവിടെ ഹാജറാക്കേണ്ടതുണ്ട് ഫീസ് അടയ്ക്കുന്ന സ്ഥാപനങ്ങൾ ഒത്തിരിയുണ്ട് എന്നാൽ സൗജന്യമാകുന്ന സ്ഥാപനങ്ങളും ഒത്തിരിയുണ്ട് ഗവൺമെൻ്റ് സ്ഥാപനങ്ങളിലെല്ലാം നാം നമ്മുടെ മക്കളെ ചേർക്കുമ്പോൾ അവിടെ നമുക്ക് ബാഗുകൾ പുസ്തകങ്ങൾ നോട്ട്ബുക്കുകൾ കുടകൾ ചെരുപ്പ് വസ്ത്രങ്ങൾ എല്ലാം നമുക്ക് സൗജന്യമായി ലഭിക്കും എന്തിന് ഉച്ചഭക്ഷണം വരെ നമുക്കവിടെ സൗജന്യമായി ആണ് ലഭിക്കുന്നത് എന്നലൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നോക്കുമ്പോൾ അവിടെ നാം എല്ലാത്തിനും ഫീസ് കെട്ടേണ്ടതുണ്ട് അവിടെ നാം നമ്മുടെ മക്കളെ ചേർക്കുമ്പോൾ ഫീസ് കെട്ടണം അതുപോലെതന്നെ അവരുടെ പുസ്തകങ്ങൾ അത് ഫീസ് കെട്ടണം നോട്ട്ബുക്കുകൾ നാം കടയിൽ നിന്ന് പൈസ കൊടുത്ത് വേണം വാങ്ങാൻ അതിനും വേണം പൈസ അവിടെയും പൈസ പോകുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം നാം നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകേണ്ടതുണ്ട് ബാഗുകൾ കുടകൾ യൂണിഫോമുകൾ ഇതെല്ലാം നാം പൈസ കൊടുത്തുതന്നെ വാങ്ങണം അല്ലാതെ അവിടെ നിന്നും നമുക്ക് ഫ്രീയായി ലഭിക്കുകയില്ല പക്ഷെ ഗവൺമെൻ്റ് സ്ഥാപനങ്ങളിൽ നമുക്കത് സൗജന്യമായാണ് ലഭിക്കുന്നത് എന്നാൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നാം ഫീസ് അടച്ചതിനുശേഷമേ നമ്മൾക്ക് ഇത്തരം കാര്യങ്ങൾ ലഭിക്കുകയള്ളൂ എന്നാൽ പ്രൈവറ്റ് സ്ഥാപനമാണോ അതോ ഗവൺമെൻ്റ് ഫീസില്ലാത്ത സൗജന്യമായിട്ടുള്ള സ്ഥാപനമാണോ നല്ലത് എന്നു നാം ചിന്തിക്കും രണ്ടും ഒരുപോലെ തന്നെയാണോ ഗവൺമെൻ്റ് സ്ഥാപനങ്ങളിലും വളരെ നല്ല വിദ്യാഭ്യാസം നൽകുന്നുണ്ട് ഉത്തമമായി നല്ലപോലെ പഠിപ്പിക്കുവാൻ എക്സ്പീരിയൻസായിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് ആ പഠനത്തിന് അവരയക്കുന്നത് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും നല്ലവണ്ണം പഠിപ്പിക്കുന്നവരുണ്ട് ഒന്നിനേയും ഞാൻ മോശമായി പറയുന്നില്ല രണ്ടും രണ്ടു തരത്തിലും നല്ലതാണ് എന്നാൽ നമ്മൾക്ക് എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ നമുക്ക് ഗവൺമെൻ്റ് സ്ഥാപനങ്ങളിൽ ചേർക്കാവുന്നതാണ് കാരണം അവിടെ സൗജന്യമായിട്ട് എല്ലാം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അവിടെ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വിശ്വസിച്ച് ആക്കാവുന്നതാണ് എന്നാൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നാം ഫീസ് കൊടുക്കേണ്ടതുണ്ട്